ആ അതെ അതെ ആ ബി ടീമിലേക്ക് വേണ്ടീട്ടല്ലേ നമുക്ക് ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാക്കേജ് എല്ലാം കൂടെ നമുക്കേ ഇവിടെ വരുന്നത് എങ്ങനെയാന്ന് വച്ച് കഴിഞ്ഞാൽ വന്ന് ഫസ്റ്റ് ജോയിനിങ്ങ് ചെയ്യുമ്പോൾ വന്നിട്ട് ഒരു ഫീസ് കാര്യങ്ങള് വരുന്നുണ്ട് യായിട്ട് ഒരു അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരവും വരുന്നുണ്ട് ആസ് യൂഷ്വൽ നിങ്ങക്കെപ്പഴാണോ ടൈമിങ്ങുള്ളത് അതിനനുസരിച്ച് വന്ന് ചെയ്യാവുന്നതാണ് ഇപ്പോൾ രാവിൽത്തെ ബാച്ചിൽ വരുവാണെങ്കിൽ രാവിൽത്തെ ബാച്ചിൽ വരാം വൈകുന്നേരത്തെ ബാച്ചിന് വേണമെങ്കിൽ വൈകുന്നേരത്തെ ബാച്ചില് വരാം നമ്മള് ഡെയിലി കോച്ചിങ്ങ് കാര്യങ്ങള് കൊടുക്കുന്നുണ്ട് ലേഡീസിന് സപ്പറേറ്റ് ആയിട്ടാണ് നമ്മള് ചെയ്യുന്നത് ആ അപ്പം എപ്പഴാണ് ക്ലാസ്സുടെന്ന് പറഞ്ഞത് രാവിലെ തൊട്ട് ഉച്ച വെരെ അങ്ങനെയാണെൽ ആഫ്റ്റർനൂൺ ഷിഫ് വൈകുന്നേരത്തെ ഷിഫ്റ്റിലേക്ക് കേറിക്കോളു അതാകുമ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഷിഫ്റ്റ് കാര്യങ്ങള് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരത്തെയൊരു എല്ലാവരുടെയും സമയം നോക്കീട്ടാണ് ഒരഞ്ച് മണി ടു ഒരു അഞ്ച് മണി നാല് മണിക്ക് തുടങ്ങുന്നത് നമുക്ക് ഇത് തുടങ്ങുന്നത് നാല് മണി ടു ഒരു ആറ് മണി ആറര ഏഴ് മണി അത് തീരുന്നതിനുസരിച്ചാണ് നമ്മള് ചെയ്യുന്നത് ആ ഇപ്പം ക്ളൈ ഇത് നോക്കീട്ടാണ് ഇ ഇരുട്ടാവുന്നതും കാര്യങ്ങളൊക്കെ നോക്കീട്ടാണ് നമ്മള് ചെയ്യുന്നത് അതിനനുസരിച്ച് ടൈമിങ്ങ് ബായ്ക്കോട്ടും ഉണ്ടാവും ഡെയിലി ഡെയിലി എന്നും വെ എന്നുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വരുന്നുണ്ട് ക്ലാസ് കാര്യങ്ങള് എന്നും വരുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം നോക്കീട്ട് ആതിനനുസരിച്ച് വന്നിട്ട് ഇതാക്കാവുന്നതാണ് ആ ഫീസ് കാര്യങ്ങളായിട്ട് നമുക്ക് വരുന്നില്ല നമുക്കാ ജോയ് അക്കാദമിയില് ജോയിനിങ്ങിൻ്റെ ഇത് മാത്രമാണ് വരുന്നത് നമ്മുടെ അക്കാദമിയിലെ ജോയിനിങ്ങിനായിട്ട് വേണ്ടിയിട്ടുള്ള ഫീസ് കാര്യങ്ങളായിട്ടാണ് നമ്മളെടുക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് ഇതായിട്ട് നമുക്ക് ടീച്ചിങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇടയ്ക്ക് നമുക്ക് ടൂർണമെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും അതിന് കാര്യങ്ങക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് മുടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട വരും ആ പിന്നതുപോലെ ഈ ജോയിനിങ്ങ് ടൈമില് നമക്ക് ബൂട്ട് കാര്യങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണം അതൊക്കെ സ്വന്തമായിട്ട് ബൂട്ട് ജേഴ്സി കാര്യങ്ങള് അതൊക്കെ സ്വന്തമായിട്ട് തന്നെ വാങ്ങണ്ടതാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജോയിനിങ്ങ് പ്രോസസ്സിന് വരുമ്പോൾ നമ്മള് പറഞ്ഞ് തരുന്നതാണ് അല്ലാതെ ആ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മള് വാങ്ങിയിട്ട് വരണ്ടതാണ് ആ സമയത്തേക്ക് നിങ്ങള് അ ആ ആ ജോനീഷേ വരുന്നതിന് മുൻപ് ഒന്ന് വിളിച്ചിട്ട് വരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എപ്പളും അവിടെയുണ്ടാകും അവൈലബിലൊളേന്നുള്ള അറിയാൻ പറ്റില്ല അതായത് ഈ ടൈമിങ്ങ് നോക്കീട്ടാണ് ഇതാക്കുക ജോയിനിങ്ങിൻ്റെ കാര്യങ്ങളും പ്രോസസ്സിങ്ങും കാര്യങ്ങളും ടീച്ചിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മള് ചെയ്യുന്നില്ല ഒരു ടൈമിങ്ങ് പറഞ്ഞിട്ട് ടൈമിങ്ങ് സമയത്ത് മാത്രമാണ് നമ്മള് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വിളിച്ചിട്ട് വരിക അങ്ങനെയാകുമ്പോൾ നമുക്ക് ജോയ്നിങ്ങ് പ്രോസസ്സിങ്ങ് എങ്ങനെയാന്നുള്ളതും ആ ഈ നമ്പറില് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി ഞാ അന്നേരം ഡീറ്റേയ്ൽസ് കാര്യങ്ങള് പറഞ്ഞ് തരാം അത് വരണ്ട ടൈമിങ്ങും അങ്ങനെ ഏകദേശം ഏകദേശം ഏത് ടൈമാണ് വരുന്നെന്നുള്ളതറിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഈ ഇടയ്ക്ക് കോച്ചിങ്ങിൻ്റെ ടൈമിങ്ങിലാന്നൊണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ട് കാര്യങ്ങള് വരും അതുകൊണ്ടാണ്